ഞാൻ കൂടുതലും ആദ്യ കാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചെറിയ മുട്ട വരുക്കല് അങ്ങനത്തെ പരിപാടിയൊക്കെയുണ്ടായിരുന്ന് ചായ വെക്കല് കാപ്പി വെക്കല് പിന്നെ പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കില് ചോറ് ആദ്യമൊന്നും അങ്ങനെ വെക്കലില്ല പിന്നെ ചെറിയ ചെറിയ കറികള് തക്കാളി ഉള്ളി മുട്ട വറ്ക്കല് മുട്ട ഓംലെറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്യുവാരുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് പറയാനാണെങ്കില് ആദ്യമൊക്കെ അമ്മ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ കുറെ കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അത്യാവശ്യം ടേസ്റ്റ് തന്നെ ആയിരുന്നുട്ടോ നമുക്കതിലാന്ന് പറയാൻ പറ്റില്ല പിന്നെ മെയിനായിട്ട് പറയാണെങ്കില് പിന്നെ പിന്നെ പിന്നെയാണ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞപ്പമുണ്ടെങ്കിൽ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് നമ്മള് യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരുപാട് കറികള് കാര്യങ്ങളൊക്കെ വെക്കുവായിരുന്നു ചെറിയ ചെറിയ കരി കറികള് കടികള് സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കും ഇപ്പോൾ പിന്നെ ഞാൻ കൂടുതലും യൂട്യൂബ് നോക്കിയിട്ടാണ് അതായത് ആദ്യം അമ്മ വെച്ച പാചകങ്ങളിൽ നിന്നാണ് ഞാൻ കറി കാര്യങ്ങളൊക്കെ വെക്കുന്നതെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണങ്കില് ഞാൻ യുട്യൂബില് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്